എൻ്റെ വീട്ടിൽ കന്നുകാലികളെ വളർത്താറുണ്ട് പശുവുണ്ട് ആടുമുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്കായിരുന്നു പശു പ്രസവിച്ചത് അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു കുഞ്ഞ് കിടാവായിരുന്നു ജനിച്ചത് അപ്പം അതിനെ പരിപാലിച്ചതെന്ന് വച്ചാൽ ഞങ്ങൾ അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഷെഡൊക്കൊ ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും അതിനെ നോക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രം പിന്നെ ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ സേവനം എല്ലാ ദിവസവും ഞങ്ങൾ കൊടുക്കുമായിരുന്നു ആ കന്നു കിടാവിന് വേണ്ടി പിന്നെ അത് നല്ല ആരോഗ്യത്തോടെയാണ് ഇപ്പോൾ ഈ ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയുള്ള മരുന്നുകളും വെറ്റിനറി വെറ്റിനറി ഡോക്ടറിൻ്റെ സേവനവും എല്ലാ ദിവസവും നമ്മൾ കൊടുത്ത് നല്ല ഇപ്പോൾ അതിപ്പോൾ നല്ല ആരോഗ്യവാനായിട്ട് എൻ്റെ വീട്ടിലുണ്ട് അതിനിപ്പം ഒരു ആറു മാസം പ്രായം കാണും പിന്നെ നല്ല ശുചിത്വമായ രീതിയിലാണ് ഞങ്ങളതിനെ പരിപാലിച്ചത് ബാക്കിയുള്ള കന്നുകാലികൾ ഉള്ള മറ്റുള്ള ആളുകൾ നോക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല രീതിയിലാണ് എൻ്റെ കന്നു കാലി കുട്ടികളെ ഞാൻ നോക്കിയത് അപ്പോൾ ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇതാണെൻ്റെ അനുഭവം കന്നു കിടാങ്ങളെ നോക്കിയാൽ എങ്ങനെ എങ്ങനെയാണെന്നുള്ള